ആ നമുക്ക് മത്സ്യം ആവശ്യത്തിനുള്ളത് നമ്മൾ പിടിക്കുക അത് കണക്ക് തന്നെ ഒരു തൊഴിലാണ് തയ്യൽ എന്ന് പറയുന്നത് തയ്യൽ ഒക്കെ നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും ഒരു തയ്യൽ പഠിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവനവന്റെ സ ഡ്രസ്സ് ഒക്കെ തന്നെ ആയാലും തയ്ച്ച് എടുക്കുവേം പിന്നെ പത്ത് രൂപയ്ക്ക് ഒരു ചുരിദാർ ഒക്കെ തയ്ച്ച് കൊടുത്താൽ നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഒക്കെ ത കൈ വ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എത്ര നല്ല എത്ര ജോലി ഉള്ളവരാണെങ്കിലും തൊ ഈ തയ്യൽ എന്ന് പറഞ്ഞൊരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അവനവന്റെ ഡ്രസ്സ് തയ്ക്കുക പിന്നെ ഒന്ന് എന്തെങ്കിലും തയ്ക്കാൻ ഉണ്ടെങ്കിൽ കൂട്ടി അടിക്കാനും കീറൽ ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ അടിച്ചെടുക്കാം മറ്റുള്ള ഇടത്ത് പോവേണ്ട അത് ഒരു രസകരമായ ഒരു ജോലി തന്നെയാണത് മീൻപിടിത്തവും തയ്യലും ഒക്കെ അത് താരതമ്യം പറഞ്ഞാൽ മീൻപിടുത്തം എന്ന് പറയുന്നത് നമ്മളിപ്പം തൈ തയ്യൽ എന്ന് പറയുമ്പം നമ്മൾ ഒരു മുറിക്കകത്ത് ഇരുന്ന് അതിനോട് അങ്ങ് ശ്രദ്ധ വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സിനൊരു ഒരു ബുദ്ധിമുട്ട് തോന്നാം അപ്പം ഒരു അപ്പം മീൻ പിടുത്തം അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഒരു മീനിനെ പിടിക്കണമെന്ന് തോന്നുന്ന ഒരു ചൂണ്ടയും കൊണ്ട് പോയാലും അതൊരു രസമായിട്ട് തോന്നും മീൻ അതപ്പം ഇപ്പോൾ കുട്ടുന്ന ആളിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു മീൻ പിടി മീൻ പിടിക്കുവേം പിടിക്കുന്നതും ഒരു തയ്യലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ആവശ്യമായ ജീവിതമാർഗം തന്നെ ഉണ്ടാവും ഒരു തുണി തയ്ച്ചു കൊടുത്താലും മീൻ ആണെങ്കിൽ പിടിച്ച് സ്വന്തമായിട്ട് പിടിച്ച് കറിവയ്ക്കുക കാശ് കൊടുക്കാതെ അതുപോലെ തന്നെ തയ്യലാണെങ്കിലും ഞാൻ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ തയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പുറത്തും തയ്ച്ച് കൊടുക്കും അതുകണക്ക് തന്നെ മ പിള്ളേ മകളുടെ ഡ്രസ്സും എന്റെ ഡ്രസ്സും എല്ലാം ഞാൻ തയ്ച്ച് തന്നെയാണ് ചെയ്യുന്നത് അത് പത്ത് രൂപ പോലും അതിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ കൂട്ടത്തിൽ മീനും കൂടെ പിടിക്കുന്നതുകൊണ്ട് കറിക്ക് ഉള്ളതായി പിന്നെ ഞങ്ങൾക്ക് കൃഷി ഒക്കെ ഉള്ളതുകൊണ്ട് അരി നെൽകൃഷി ഒക്കെ ഒണ്ട് അതുകൊണ്ട് അരിക്കൊക്കെ ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് ഓരോരൊ കാര്യങ്ങൾ സാധിക്കും സാധിക്കും പിള്ളേരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പത്ത് രൂപ സ ഭർത്താക്കന്മാർ കൊ തന്നെ കൊണ്ടുവരാൻ കൊണ്ടുവരാതെ നമ്മളും കൂടെ കൂടി വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം പിടിക്കുവേം പിന്നെ തയ്യലുമൊക്കെ ചെയ്ത് അവർക്ക് അവർക്കൊരു സപ്പോർട്ട് ആയിട്ട് നിന്നാൽ കുടുംബത്തിന് മേൽഗതി ഉണ്ടാവും അതെനിക്ക് എൻറെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുണ്ട് ഞങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കിപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത് നാ എൻ എൻറെയും കൂടെ കൂടിയുള്ളൊരു കഴിവ് കൊണ്ട് തന്നെ ആണേന്ന് മനസ്സിലാക്കും മക്കൾക്ക് സ്സ്ണെങ്കിലും മക്കൾ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന തൊഴിലിനോട് ഇഷ്ടം ഉള്ളവർക്ക് ഒന്ന് തയ്ക്കാനും മോൾ ആണെങ്കിലും വല്ലതുമൊക്കെ അവളുടെ ആവശ്യത്തിന് ഉടുപ്പ് ഒക്കെ തയ്ച്ച് തയ്ക്കാൻ കൂടും